ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ് എന്നിരുന്നാലും ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണ സംവിധാനത്ത് വളരെ അധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്നു വെച്ചാൽ ഇന്ത്യയിലെ ആശുപത്രികളുടെ അഭാവം തന്നെയാണ് കേരളത്തിൽ അത്യാധുനിക രീതിയിലുള്ള ആശുപത്രികൾ ഉണ്ടെന്നിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ അഭാവം വളരെ കൂടുതലാണ് ഗ്രാമീണ മേഖലകളിൽ ഈ ഇപ്പോൾ ഈ ഹോസ്പിറ്റലുകളുടെ അഭാവം വളരെ കൂടുതലാണ് കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ യു പി രാജസ്ഥാൻ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൗകര്യം വളരെ കുറവാണ് ഇത് ഇന്ത്യൻ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വളരെ അധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇന്ന് എത്ര വലിയ രോഗമാണെങ്കിലും ചികിത്സിച്ച് മാറ്റാനുള്ള സംവിധാനം ലോകത്ത് ഉണ്ടെങ്കിലും അത്യാധുനിക രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ ഇല്ല എന്നത് തന്നെയാണ് നമ്മൾക്ക് കണ്ടു വരുന്നത് ഇന്ന് ആരോഗ്യ മേഖലയിൽ പ്രധാന വെല്ലുവിളിയായിട്ട് കാണപ്പെടുന്നും ഇതു തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നമ്മൾ ആദ്യം ചെന്നെത്തിപ്പെടേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് എന്നാൽ പല സംസ്ഥാനത്തിൽ പല പ്രദേശങ്ങളിലും ഇന്ന് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇല്ല ഇത് ഇന്ത്യൻ ആരോഗ്യ രംഗത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആയിട്ടാണ് കണ്ടു വരുന്നത്